നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ കുടുംബ തർക്കങ്ങൾ പരിഹരിയ്ക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല രീതികളാണ് ഇപ്പം അതിൽ ചിലപ്പോൾ നമ്മുടെ ചില ഗ്രാമങ്ങളിൽ കുടുംബ അല്ലെങ്കിൽ ഗ്രാമമുഖ്യന്മാരുണ്ടാകും അപ്പം അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിലെ കാർന്നോന്മാർ തമ്മിൽ സംസാരിയ്ക്കും എന്താ പറയുക അല്ലെങ്കിൽ ഈ മിക്കവാറും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക കുടുംബത്തിലെ കാർന്നോന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കൂട്ടുകാരെപ്പോലെത്തന്നെ ആയിരിയ്ക്കും അപ്പം അവർ തമ്മിൽ സംസാരിച്ച് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നു പറയുമ്പോൾ അവർ പർ പരിഹരിയ്ക്കും അല്ലെങ്കിൽ ഗ്രാമത്തിലെ കുറച്ച് വലിയ ആൾക്കാർ മുതിർന്ന ആൾക്കാർ എല്ലാവരും കൂടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തീർക്കും അല്ലെങ്കിൽ ഗ്രാമത്തിലെല്ലാ മതസ്ഥരിലും മെയ്നായിട്ടുള്ള ആൾക്കാർ ചേർന്ന് സംസാരിച്ചിട്ട് തീർക്കും ഇപ്പം ഈ അടുത്തിടെ ഉണ്ടായ ഒരു പ്രശ്നമെന്നു പറയുകയാണ് പറയുമ്പോൾ ആ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച്ചയാണെന്നു തോന്നുന്നുണ്ട് ഇപ്പം രണ്ട് രണ്ട് മതത്തിൽപ്പെട്ട യുവതീയുവാക്കൾ പ്രണയിച്ച് കല്യാണം കഴിച്ചു അപ്പം അത്യാവശ്യം ചെറിയതല്ല അത്യാവശ്യം നല്ലൊരു പ്രശ്നം തന്നെയാണ് ആയത് ആ സമയത്ത് ഇതുപോലെ കുടുംബത്തിലെ ആൾക്കാർ കയറ്റുകയില്ല അതായത് അവരെ കുടുംബത്തിൽ കയറ്റുകയില്ല അവർക്കു നാട്ടിൽ നിൽക്കാൻ പറ്റില്ല നാട്ടിൽ നിൽക്കാൻ പാടില്ലായെന്നൊക്കെപ്പറഞ്ഞിട്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഒരു കുടുംബം ചെക് പെണ്ണിൻ്റെ കുടുംബം ഓക്കെയാണ് പക്ഷെ ചെക്കൻ്റെ കുടുംബത്തിലത് സമ്മതിക്കില്ലായെന്നു പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെയായി അവർ തല്ലും അങ്ങനെയിങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെയായി ആ സമയത്തു നമ്മൾ ഇതുപോലെ കോ ഈ ഗ്രാമത്തിലുള്ള ഈ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും വിളിച്ച് നമ്മൾ ഇരുത്തി സംസാരിച്ച് അവരിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു തീ തീർപ്പാക്കി അപ്പോൾ തീർപ്പാക്കിയെന്നു പറയുമ്പോൾ ആൾക്ക് ഇപ്പോൾ അവർക്ക് സമ്മതം അല്ല പക്ഷെ അതുകൊണ്ടവർക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലായെന്നല്ല അവർക്ക് ഇവിടെ നീൽക്കാം ജീവിയ്ക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ മറ്റ് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ യാതൊരു വിധ എന്താ പറയുക ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സ്വത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കില്ല അപ്പോൾ അവർ അവരും സമ്മതിച്ചു ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ പരിഹരിച്ചു ഇപ്പോൾ തല്ലും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവായി പക്ഷെ ചെറിയ ചെറിയ ഒരസലും കാര്യങ്ങളൊക്കെയുണ്ട് എന്നാലും